കൃഷി മത്സ്യബന്ധനം മൃഗപരിപാലനം ക്ഷീരോൽപാദനം കൃഷി എന്നിവക്ക് സാങ്കേതിക വിദ്യ ഒരുപാട് സഹായങ്ങൾ നമുക്കുണ്ട് ഇപ്പം തന്നെ നമുക്ക് ഇപ്പോൾ നമ്മൾ ഒരു മത്സ്യബന്ധനം നടത്തുകയാണെന്ന് വെച്ചോ ഇപ്പോൾ നമുക്ക് മത്സ്യബന്ധനം മത്സ്യകൃഷി ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മീനുകൾ ഒക്കെ ചിലപ്പം ചത്തു പോവുക അപ്പോൾ നമുക്ക് അതിൻ്റെ കാരണമെന്താ ചിലപ്പോൾ അറിയാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ നമ്മൽ എന്താ ചെയ്യുക നമ്മൾ ഇപ്പോഴത്തെ സാങ്കേതികവിദ്യ അനുസരിച്ച് യൂറ്റൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കും അപ്പോൾ അതിൽ ഒരുപാട് കാരണങ്ങൾ പറയും ചില പി എച്ച് വാല്യൂൻ്റെ ഇതൊക്കെ നോക്കാനൊക്കെ പറയും അപ്പോൾ നമുക്ക് അറിയില്ല ഇത് എങ്ങനെയാ നോക്കേണ്ടത് എന്ന് പോലും നമുക്ക് അറിയത്തില്ലായിരിക്കും പക്ഷെ യൂറ്റൂബിലൊക്കെ അത് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് എങ്ങനെയാ നോക്കുന്നത് അതിനെ പി എച്ച് കുറവാണെങ്കിൽ എന്താ ചെയ്യേണ്ടത് പി എച്ച് കൂടുതലാണെങ്കിൽ എന്താ ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് അങ്ങനെ കാര്യങ്ങൾ മനസിലാക്കി ചെയ്യാനായിട്ട് സാങ്കേതികവിദ്യ ഒരുപാട് പ്രയോജനം ചെയ്യുന്നുണ്ട് ഇപ്പോൾ ക്ഷീരോല്പാദനം മേഖലയിലായാലും പശുവിന് എന്തെങ്കിലും ഒക്കെ ഒരു ആ പശുവിനോ ആടിനോ എന്തെങ്കിലും ഒക്കെ ഒരു പ്രശ്നം വന്നാൽ നമുക്ക് കണ്ടുപിടിക്കാൻ ഇപ്പോൾ എളുപ്പമാണ് നമുക്ക് പെട്ടെന്ന് ഇപ്പം പശുവിന് ചെറിയൊരു എന്തെങ്കിലും അസുഖം വന്നാൽ ഓടിപ്പിടിച്ച് മൃഗാശുപത്രിയിലോട്ട് ചെല്ലേണ്ട എന്ന് പകരം നമുക്ക് ഇപ്പോൾ നമുക്ക് ഒന്ന് ഗൂഗിളിൽ സേർച്ച് ചെയ്ത് നോക്കിയാൽ ചിലപ്പം ചില പൊടി കൈകൾ ആയിട്ടുള്ള മരുന്നുകൾ നമുക്ക് കിട്ടും അതൊക്കെ കൊടുത്താൽ ചിലപ്പോൾ ശരിയാവാം എല്ലാ കാര്യത്തിലും ചിലപ്പോൾ അത് പോസിബിൾ ആവണമെന്നില്ല പക്ഷെ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഈ പറയുന്ന സാങ്കേതികവിദ്യയുടെ ഉപയോഗം വളരെ ഉപയോഗം തന്നെയാണ് അതിപ്പം കൃഷിയിലായാലും ചിലപ്പം വല്ല കൃഷിയൊക്കെ ചെയ്യുന്നവർക്കറിയാം നമുക്ക് ഈ ഇലയിലൊക്കെ പുഴു അരിക്കും അങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊക്കെ വരുമ്പം നമുക്ക് അറിയില്ല എന്ത് മരുന്നാണ് കൊടുക്കേണ്ടത് ആ സമയത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് യൂറ്റൂബ് എടുത്ത് സെർച്ച് ചെയ്ത് നോക്കിയാൽ ഒരുപാട് അതിനെ പറ്റിയുള്ള വീഡിയോസും കാര്യങ്ങളും നമുക്ക് കിട്ടും അപ്പോൾ നമുക്ക് അതിനുള്ള മരുന്നുകൾ കൊടുക്കാൻ അതിന് പരിപാലിക്കുവാനൊക്കെ ഒരുപാട് നമുക്ക് ഉപയോഗമുള്ള ഒരു കാര്യംതന്നെ ആയിരിക്കും സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് നമുക്ക് അതിന് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യത്തിന് ഒരുപാട് ഉപയോഗങ്ങൾ നമുക്ക് കൃഷി എന്തുമായിട്ടായാലും ഞാൻ വീട്ടിൽ മത്സ്യബന്ധനം നടത്തിയിട്ടുള്ള ആളാ അപ്പോൾ അതിൻ്റെ പേരിലാ മൃഗപരിപാലനം നടത്തിയിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കാര്യത്തിന് നമുക്ക് ഒരുപാട് ഉപയോഗമുണ്ടായിട്ടുള്ള ഒരു കാര്യമാണ് ഈ പറയുന്ന സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും എവിടെയെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ അപ്പഴേ നമുക്ക് നമ്മുടെ ഇപ്പോൾ സാങ്കേതികവിദ്യകൾ അനുസരിച്ച് നമുക്ക് ഫോണിൽ കൂടെ ഒക്കെ ആയാലും നമുക്ക് യൂറ്റൂബിലൊക്കെ ആയാലും നമുക്ക് നോക്കി അതിൻ്റെ ആൻസറ് കണ്ടുപിടിക്കാനും നമുക്ക് അതിനുള്ള പ്രിക്വെഷൻസ് എടുക്കാൻ നമുക്ക് ഒരുപാട് സഹായിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അത് ഏത് മേഖലയിലായാലും നമുക്ക് ഇനി ഈ കൃഷിയാണെങ്കിൽ തന്നെ നമ്മൾ വിളവെടുപ്പ് കഴിഞ്ഞിട്ട് സാധനം നമുക്ക് വിൽക്കുവാൻ പോലുമുള്ള ഇപ്പഴും നമുക്ക് വില്പന പോലും നമ്മൾ നമുക്ക് സാങ്കേതികവിദ്യകളിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് അങ്ങനെ ഒരുപാട് പേരെ നമുക്ക് കാണാൻ സാധിക്കും അപ്പം എന്തുകൊണ്ടും ഈ പറയുന്ന കൃഷി മത്സ്യബന്ധനം മൃഗപരിപാലനം ക്ഷീരോൽപാദനം കൃഷി എന്നിവയിലൊക്കെ സാങ്കേതികവിദ്യയുടെ സഹായമെന്ന് പറയുന്നത് വളരെ വലുതാണ് അത് നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് പോലെ ഇരിക്കും അത് നല്ലപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ നല്ല രീതിക്ക് നമുക്ക് അതിനെ സപ്പോർട്ട് ചെയ്ത് നമുക്കും നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് അതിനേക്ക് നല്ലൊരു പ്രോഗ്രസീവ് വരുത്താനായിട്ട് നമുക്ക് പറ്റും അത് കുറച്ചൊക്കെ നമുക്ക് ഒരു ഫോണുമായിട്ടും യൂറ്റൂബ് ആയിട്ടും കുറച്ച് ബന്ധം ഉള്ള ഒരാൾ ആണെങ്കിൽ നല്ലപോലെ നമുക്ക് മനസിലാക്കി കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു മേഖല തന്നെയാണ് ഈ പറയുന്ന എല്ലാ മേഖലയും അത് കൃഷി ആയാലും ശരി മൃഗപരിപാലനം ആയാൽ മൃഗ പരിപാലനത്തിന് ഒരുപാട് നമുക്ക് അറിയാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് ഫോൺ വഴിയൊക്കെ സാങ്കേതികവിദ്യ വഴി നമുക്ക് കണ്ടുപിടിച്ച് ചെയ്യാൻ സാധിക്കും